ഹലോ ആ സതീശനാണോ ആ സതീശാ ഒരു കാര്യം ചോദിക്കാനായിരുന്നു നമ്മുടെ ജനറേറ്ററിന് ശകലം കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നല്ലോ ആ അത് ശരി അപ്പം നിങ്ങളവിടെ എന്തിന്നാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കിങ്ങനെയുള്ള സംഭവം നടക്കുന്നതൊന്നും അറിയുന്നില്ലേ നിങ്ങളുടെ ജോ നിങ്ങളുടെ ജോലിക്ക് അവരവരുടെ ജോലിക്കവരവരുടെ ഉത്തരവാദിത്വം വേണം അവിടെ ജനറേറ്ററ് വർക്കിങ്ങാണോ വർക്കിങ്ങല്ലയോന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊന്നുമില്ലേ നമ്മളെ ജനറേറ്ററീനകത്ത് എന്തോരം പ്രോബ്ലം വന്നിട്ടുണ്ട് അത് ഇന്നലെ കുറച്ച് സമയത്തിന് വർക്കിങ്ങായിരുന്നില്ല അതിൻ്റെ എന്താണ് കംപ്ലയിൻ്റെന്നു നോക്കുക അത് കഴിഞ്ഞിട്ടവിടെ അതിനു വേണ്ടിയ ഇന്ധനങ്ങൾ ഡീസല് അതുപോലെ തന്നെ അ അതിൻ്റെ ആ സർവീസ് വയറൊക്കെ അവിടുന്ന് പോയിരിക്കുന്ന വയറിനെക്കുറിച്ച് ഇനി അതിനകത്ത് വല്ല ഫോൾട്ടാണോ നമ്മുടെ ജനറേറ്ററിനകത്തുള്ള ഫോൾട്ടാണോന്നൊന്ന് അന്വേഷിക്ക്

അല്ല അവിടെ കേശവൻ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പറേറ്ററിൻ്റവിടെ കേശവനെ നമ്മൾ വെച്ചിട്ടില്ലേ കേശവനവിടെന്ന് ഉറങ്ങുവാണോ അവിടെ നിന്ന് കേശവനവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ലേ ഇല്ല ഇല്ല കേശവനോട് പറ കേശവനോട് ചോദിച്ചേ വാട്ട് ഈസ് യുവർ പ്രോബ്ലം അപ്പോൾ കേശവൻ ഡ്യൂട്ടീലൊന്നും വരുന്നില്ലേ ഡ്യൂട്ടീൽ ഉറക്കം ഡൂ അല്ല അങ്ങനല്ലല്ലോ നമ്മൾ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവരവർ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ല കേശവൻ കേശവനോട് പറ കേശവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ടെന്നോട് സംസാരിക്കാൻ പറയണം കാര്യം നി നി ഒരു ജനറേറ്ററിൻ്റെ കാര്യം ഞാനന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലിക്കാർ എന്ത് ചെയ്യും അപ്പോൾ അവരവരുടെ ഡ്യൂട്ടി അല്ലല്ല ഇത് ഇങ്ങനായിപ്പോയി കഴിഞ്ഞാൽ ഞാൻ സ്ട്രിക്ട് ആക്ഷനിൽ വരും എല്ലാവരേം ഞാൻ ശരിയായ രീതിയിൽ മുൾ മുൾമുനയിൽ നിർത്തും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ ഫാക്ടറി ഓടണമെന്നുണ്ടെങ്കിൽ എല്ലാ മെഷീൻസും അത് ജനറേറ്ററായാലും വെളിച്ചവായാലും മറ്റേതായാലും ലൈറ്റിൻ്റെയായാലും എല്ലാം നമ്മുടെ വർക്കിങ്ങായിരിക്കണം ആ ആ ലാബ് ടെക്നീഷ്യൻ വന്നായിരുന്നോ അത് നമ്മൾ ലാബിലേക്കുള്ളൊരു ടെക്നീഷ്യനെ നമ്മൾ വെച്ച് പുതുതായിട്ടുള്ള ഒരാളെ എടുത്തായിരുന്നല്ലോ അയാൾ വരുന്നുണ്ടോ ഇന്നെന്താ വരാഞ്ഞത് അയാൾ ആപ്ലിക്കേഷനൊന്നും തന്നിട്ടില്ല അപേക്ഷ തന്നോ അതും അവിടെ അതിന് നമ്മൾ അവിടെ ഒരു സൂപ്പർവൈസറെ വച്ചിട്ടില്ലേ അതിലെങ്ങനായാലും ഇന്ന് ഇന്ന് ഫങ്ക്ഷന് അത് ജനറേറ്ററിലെ പ്രോബ്ലം പെട്ടന്ന് ഉണ്ടെങ്കിൽ പെട്ടന്ന് ശരിയാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ മേലാൽ ഒരു കംപ്ലെയിൻ്റ് വരാൻ പാടില്ല അല്ല പ്രശ്നം ഉണ്ടോ ഇല്ലയോ ശരിയാക്കിയോ എന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് തരിക

ആ ശരി ശരി ശരി ശരി